ഉൾനാടുകളിൽ ഭൂമി സ്വന്തമാക്കാൻ അവർ അവർ മറ്റെവിടെയെങ്കിലും ബ്രോക്കർമാരേയും അങ്ങനെയുള്ളവരെയൊക്കെയാണ് അവർ സംരക്ഷിക്കുക അവർ ആശ്രയിക്കുന്നത് അപ്പം അവർക്ക് കൃഷി നടത്താൻ വേണ്ടിയവർ പുറത്തുപോയി കുറഞ്ഞ വിലയ്ക്ക് ഭൂമിയൊക്കെ മേടിച്ച് അങ്ങനെ കൃഷി നടത്തി അവർക്ക് നല്ല ലാഭം ലഭിക്കാനാണവർ ആഗ്രഹിക്കുന്നത് പക്ഷെ അവർ ചില ബ്രോക്കർമാരവരെ പറ്റിച്ച് പൈസ മേടിച്ച് സ്ഥലമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞവരങ്ങനെ അങ്ങനെ പോകും പിന്നെ അതുവഴി അവിടെനിന്നെല്ലാം അറിയാവുന്ന നാട്ടുകാർ അങ്ങനെയുള്ളവർക്ക് പരിചയപെട്ട് അങ്ങനെയാണ് നമ്മൾ ഭൂമിയൊക്കെ പറഞ്ഞറിഞ്ഞ് കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഭൂമിയുണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ അങ്ങനെയൊക്കെ നോക്കിയാണ് നമ്മൾ ഭൂമി സ്വന്തമാക്കുന്നതും കൃഷി നടത്താൻ വേണ്ടിയും പിന്നെയും ഒത്തിരി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം നോക്കി അതിഷ്ടപ്പെട്ട് അങ്ങനെ കണ്ടെത്തിയും കുറഞ്ഞ വിലയിൽ അവർ മറ്റേ പേപ്പറ് വർക്കും അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്തു ചെയ്തു വരുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ അവിടെയൊരു പിന്നെ തടസ്സങ്ങൾ കാണും ചിലപ്പോൾ അവിടെ കൃഷിയിറക്കാൻ പറ്റത്തില്ല ഒന്നികിൽ ഈ ബ്രോക്കർമാർ പറ്റിച്ച് അവിടെ നല്ല കൃഷിയിറക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് സ്ഥലം മേടിപ്പിക്കും പക്ഷെ അത് കൃഷിയ്ക്ക് യോഗ്യമല്ലെന്ന് വില്ലേജിൽ നിന്നും അവിടെ നിന്നൊക്കെ ചെന്നു ചോദിക്കുമ്പോഴായിരിക്കും അറിയുന്നത് അപ്പോൾ പക്ഷെ തിരിച്ചു ചെല്ലുമ്പോഴത്തേക്കും പൈസയും കിട്ടത്തില്ല അവർ പറയും നിങ്ങളൊക്കെ നോക്കേണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞങ്ങനെ അവരെ നമ്മൾ ബ്രോക്കർമാരും അവർ കാര്യങ്ങളൊക്കെ പറ്റിക്കും അതാണ് നമ്മൾ നമുക്ക് പരിചയമുള്ളവരുടെ സ്ഥലങ്ങളെന്നും അങ്ങനെയുള്ളവർക്കൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ പോയി മേടിക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ല നമുക്ക് നമുക്ക് നോക്കി എങ്ങനെയുണ്ട് സ്ഥലം എന്നൊക്കെ നോക്കി സ്വന്തമാക്കാൻ പറ്റും നമ്മൾ നേരെ ഭൂമി മേടിക്കുന്നതിന് ഉപദേശം ആയിട്ട് സ്വീകരിക്കുന്നത് അവിടുത്തെ ജനങ്ങളൊ നമുക്ക് പരിചയമുള്ളവരെ ഒക്കെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് ഇല്ലെങ്കിൽ നേരെ ചെന്ന് വില്ലേജിൽ വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറയും അങ്ങനെയാണ് ഈ നമ്മൾ സ്ഥലം മേടിക്കുന്നതും ഇതൊക്കെ ചെയ്യുന്നതും